എൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റ് മാട്രസ്സാണ് ഇപ്പോൾ നമുക്ക് അതായത് ആദ്യം നമ്മളുടെ അടുത്ത് പിന്നെ സാധാ ഒരു ജസ്റ്റ് ഒരു ചകിരീൻ്റെ പോലത്തെ ഒരു വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു നാലായിരം രൂപേൻ്റെ മാട്രസ്സാണ് ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ഡെലിവറിക്കൊക്കെ ശേഷം നമ്മൾ കുറച്ച് നല്ല മാട്രസ്സ് മേടിക്കാം എന്നു വിചാരിച്ചു നമ്മൾ ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് നമ്മൾ പിന്നെ ഫാമിലി കോട്ടാണ് മേടിച്ചത് അപ്പോൾ തന്നെ പന്ത്രണ്ടായിരം രൂപയായി അപ്പം അതിൽ കണ്ടിരിക്കുന്നത് ഫൈവ് സ്റ്റാർ ഒക്കെ ഉണ്ടായിരുന്നേ അതു കൊണ്ടാണ് നമ്മൾ മേലെ സ്പോഞ്ച് താഴെ ചകിരി അങ്ങനെ ഒരു പിന്നെ ഇതിലായിരുന്നു ഓൺലൈനിൽ കാണിച്ചത് അപ്പോൾ നോക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിച്ചപ്പം ഇത് വളരെ മോശമായിട്ടുള്ള ഒരു പിന്നെ നമ്മൾ മേടിച്ചിട്ട് അതായത് കെ അതായത് മാട്രസ്സ് നമുക്ക് റിട്ടേൺ എടുക്കില്ല അപ്പം പിന്നെ കിടന്ന് നോക്കിയപ്പോൾ ഭയങ്കര ചൂട് നമ്മൾ കിടക്കുമ്പോൾ ഭയങ്കര അടിയിൽ നിന്ന് ഇങ്ങനെ വല്ലാണ്ട് ചൂട് അടിക്കും അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ചകിരിയാണ് സ്പോഞ്ച് അല്ലയെന്നൊക്കെ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കിത് വലിയ ഇഷ്ടം ഒന്നുമായില്ല ഈ പ്രൊഡക്റ്റ് എനിക്ക് ഇതിന് നെഗറ്റീവ് അഭിപ്രായം മാത്രമേ ഉള്ളൂ നല്ല പ്രൊഡക്റ്റ് ഒന്നും അല്ലായിരുന്നു നമ്മളുടെ പൈസ പോയി എന്നല്ലാണ്ട് വേറെ ഒന്നും ഉപകാരം ഉണ്ടായില്ല